പ്രധാന ഉപജീവന മാർഗ്ഗം കൃഷിയാണ് നെൽകൃഷിയാണ് കൂടുതലായും ചെയ്യുന്നത് ഈ ജോലി തിരഞ്ഞെടുക്കാൻ കാരണം ഞങ്ങൾ പാരമ്പര്യമായി കൃഷിയാണ് ചെയ്ത് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ആ മേഖലയെക്കുറിച്ചുള്ള ഒരറിവും അതിനുള്ള സ്ഥലവും നമുക്ക് ലഭ്യമാണ് അതുകൊണ്ടാണ് ഈ ജോലി തിരഞ്ഞെടുക്കുന്നത്